നമ്മളുടെ പ്രദേശത്തിൻ്റെ ഒരു സവിശേഷമായ കലാരൂപങ്ങളിൽ ഒന്നാണ് പടയണി കോട്ടാങ്കൽ പടയണി പ്രശസ്തമാണ് പാള പാള ഉപയോഗിച്ചിട്ട് അതിൽ ചിത്ര രൂപങ്ങൾ നിറങ്ങളാൽ ചാലിച്ച് ചെയ്യുന്നതാണ് പടയണിയുടെ ഒരു മെയിൻ ഒരു അട്രാക്ഷൻന്ന് പറയുന്നത് പടയണി കാണാനായിട്ട് അത് ആസ്വദിക്കാനായിട്ടും ഒത്തിരി ആളുകൾ നമ്മുടെ കോട്ടാങ്കൽ പടയണി സമയത്ത് ഉത്സവം കോട്ടാങ്കൽ അമ്പലത്തിൻ്റെ ഉത്സവം സമയത്ത് കോട്ടാങ്കൽ പടയണി കാണാനായിട്ട് ജാതി മതഭേദമന്യേ ആർക്കാർ വരുന്നും കാണുകയും ആസ്വദിക്കേം ചെയ്യാറുണ്ട് കണ്ണിന് കൗതുകമായിട്ടുള്ള ഒരു വേറിട്ടൊരു അനുഭവം നൽകുന്ന കലാരൂപമാണ് പടയണി അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ ഒരു സവിശേഷതമായ തനതായ ഒരു കരകൗശല വസ്തുവിൽ പെടുന്നതാണ് നമ്മുടെ ആറന്മുള കണ്ണാടി അതും പ്രശസ്തമാണ്